ഹലോ ഹോട്ടൽ എലഗൻ്റ് അല്ലേ ഞാന് ബീന ആയിരുന്നെ എൻ്റെ ഞാൻ മുമ്പേ കുറേ സാധനങ്ങൾക്ക് ഓർഡർ തന്നില്ലേ ആ അഡ്രസ്സ് തെറ്റാണെ അഡ്രസ്സ് അല്ലല്ല ഞാൻ ഇപ്പോള് പറയുന്ന ഈ പുതിയ അഡ്രസ്സിലേക്ക് ബീന കണ്ണഞ്ചിറ നെലാവുഴി എന്ന അഡ്രസ്സില് എൻ്റെ ഫോൺ നമ്പറിൽ ഈ ഫോൺ നമ്പറിലോട്ട് എന്നെ വിളിച്ചാല് മതിയെ ഞാൻ അപ്പോൾ അവിടെ പുറത്തിറങ്ങി നില്ക്കാം നിങ്ങള് മറ്റേ അഡ്രസ്സ് തെറ്റിപ്പോയി യാദൃച്ഛികമായിട്ട് തെറ്റിപ്പോയതാണേ അത് ഈ പുതിയ അഡ്രസ്സിലേക്ക് ഈ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം ഞാൻ ഉറപ്പായിട്ടും ആ വഴിയിലൂടെ നിങ്ങൾ വിളിച്ചാല് മതി ഞാൻ ഇറങ്ങി അവിടെ നില്ക്കാം പിന്നെ ഓഡറേയ്ത സാധനങ്ങൾ എല്ലാംതന്നെ കൊണ്ട് കൊണ്ടുവരണം കേട്ടോ പിന്നെ എത്ര സമയം എടുക്കുവെന്നും വിളിച്ച് പറയണം കൊണ്ടുവരാനായിട്ട് പിന്നെ ഒരു അഞ്ചാറു പേര് ഗസ്റ്റുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ലേറ്റ് ആവല്ലേട്ടോ പിന്നെ അത്രയും സാധനങ്ങള് ആ പറഞ്ഞിരിക്കുന്ന അത്രയും സാധനങ്ങള് അത്രയും എണ്ണവും കൊണ്ടുവരണേ എന്നാലേ അവർക്ക് എല്ലാവർക്കും അതു തികയത്തുള്ളൂ പിന്നെ അത് ഞാൻ പറഞ്ഞ സാധനങ്ങളില്ലെങ്കിൽ വേറെ എന്തോ നിങ്ങളുടെ കൈവശം ഉള്ളത് അതൊന്നു വിളിച്ചുപറഞ്ഞിട്ട് അത് കൊണ്ടുവരണമെന്ന് ഇന്നിന്ന സാധന മറ്റേ ആന്റി ഞാൻ പറയുന്ന സാധനം ഇല്ല പിന്നെ ഇന്നിന്ന സാധനങ്ങളാണ് ഞങ്ങളുടെ പക്കൽ ഉള്ളത് അത് വേണോ എന്ന് ഒന്ന് ചോദിക്കൂ ഒന്ന് അറിയിക്കണേ അപ്പോള് ഞാൻ പറയാം അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് വേണ്ടാത്തതെന്ന് ഉറപ്പായിട്ടും ഒരു ഒരുമണിക്കൂറിനകം നമുക്ക് സാധനം വീട്ടിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണേ പിള്ളാരും ഒക്കെ കൊച്ചുപിള്ളാരൊക്കയുള്ളതാ മിക്കവാറും ഇത്തിരി വിശന്നാണ് വന്നത് അവര് യാത്ര കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂര് നീണ്ട യാത്രയും കഴിഞ്ഞ് വീട്ടില് വന്നതാണേ അപ്പോള് അവർക്ക് കൊടുക്കാനാണ് കുറച്ച് ജ്യൂസും കുറേ ജൂസു കൂടെയൊക്കെ പല ടൈപ്പിലൊക്കെ കരുതിക്കോ അതുകൂടെ എടുത്തോട്ടോ ഓക്കേ ഒരുമണിക്കൂറിനകം നിങ്ങള് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ബൈ